ഹലോ ഒനിയൻ റെസ്റ്റോറന്റ് അല്ലേ ആ ഇന്ന് വൈകിട്ട് അവിടെ വച്ചിട്ട് ഞങ്ങൾക്കൊരു പാർട്ടി നടത്തണമെന്നുണ്ടായിരുന്നു ഒരു പത്ത് പേർക്ക് പത്ത് പേർ ഇരിക്കാവുന്ന ഒരു ടേബിൾ ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓഫർ ഞങ്ങൾക്ക് കിട്ടുമോ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ പാർ കാർ പാർക്കിങ് സൗകര്യം അവൈലബിൾ അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ പത്ത് പേരടങ്ങുന്നവർക്കുള്ള പാക്കേജിൽ ഓ ഫോർട്ടി പേസെൻറ്റേജ് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാകുമല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു